നവജാത ശിശുക്കൾക്ക് വൃത്തിഹീനിയം വൃത്തിഹീനമായ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ശുചിത്വം പാലിക്കണം അപ്പം എല്ലാരും എന്താണ് പറയുക ഇപ്പോൾ ആ ഒരു കുട്ടീനെ എടുക്കുവാണെങ്കിൽ അവർ എവിടെയെങ്കിലും ഇപ്പം ടൗണിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഡെയ്ലി കയ്യും എല്ലാം വാഷ് ചെയ്തിട്ട് വേണം പിന്നെ കുളിക്കുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പം എന്നിട്ടൊക്കെ മാത്രമേ കുട്ടികളെ എടുക്കാനും കാര്യങ്ങളൊക്കെ പാടുള്ളു പിന്നെ അവരെ എന്താണ് പറയുക എടുത്ത് എടുക്കുന്നത് കൊണ്ടും ചില ചിലപ്പം അസുഖങ്ങളൊക്കെ പകരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്കെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ യൂസ് ചെയ്യുക നമ്മൾ കിടക്ക അവരെ കിടത്തുന്ന സ്ഥലമാണെങ്കിലും എന്താണ് പറയുക ഇപ്പോൾ അവർക്കൊക്കെ ഉടുപ്പിക്കുന്ന ഡ്രെസ്സ് ആണെങ്കിലും നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ടർക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്